രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരം ആറ് ഒൻപത് രണ്ടായിരത്തി നാല് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്